ഞാൻ ഹോട്ടലുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം എന്താണെന്നു വച്ചാൽ നമ്മൾ എപ്പോഴും വീട്ടിൽ സദ്യ പോലെ സദ്യ ആയിരിക്കും അപ്പോൾ പിന്നെ നോൺ വെജ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ പുറത്ത് പോയിക്കഴിഞ്ഞാൽ ബിരിയാണി ആണ് ഏറ്റവും കൂടുതൽ കഴിക്കാറ് അത് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ബിരിയാണി ഇഷ്ടമല്ലാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലല്ലോ അതുകൊണ്ടുതന്നെ ഏറ്റവും കൂടുതലും ബിരിയാണി തന്നെയാണ് കഴിക്കാറ് പുറത്ത് പോയി കഴിഞ്ഞാൽ